മലയാളം സംസാരിക്കാത്ത ആളുകളുമായി ആശയവിനിമയം നടത്താൻ മലയാളികൾക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെതന്നെ സാധിക്കാറുണ്ട്

വിദ്യഭ്യാസ നിലവാരത്തിലും സാക്ഷരതയിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം പ്രത്യേകിച്ച് മലയാളികള് മറ്റ് ഭാഷകൾ പഠിച്ചെടുക്കാനായിട്ട് കൂടുതല് താല്പര്യം കാണിക്കുകയും അത് പഠിക്കുകയും ചെയ്യാറുണ്ട് എങ്കിൽത്തന്നെയും നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിലെ ഭാഷകളെല്ലാം ഏകദേശം ഒരേപോലെയുള്ള ഭാഷകളായതുകൊണ്ടും ഉദാഹരണമായി തമിഴോ കന്നഡയോ തെലുങ്കൊക്കെ എടുത്ത് കഴിഞ്ഞാൽത്തന്നെ പല വാക്ക്കളും പൊതുവായിട്ട് ഒരേപോലെ ഉപയോഗിക്കുന്ന ഭാഷാപ്രയോഗങ്ങൾ ഈ ഭാഷകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അത്കൊണ്ട്തന്നെ നമുക്ക് വളരെ സംസാരിക്കാൻ സാധിച്ചില്ലെങ്കിൽപ്പോലും ആശയവിനിമയം നടത്താനായിട്ട് നമുക്ക് നമ്മുടെ ഭാഷകൊണ്ട് സ്വാധിക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം കൂടുതല് സാമ്യമുള്ള ഭാഷ മലയാളവും തമിഴും കൂടുതല് സാമ്യമുള്ള ഭാഷയായത് കൊണ്ട് ഏകദേശം എല്ലാ കാര്യങ്ങളും നമുക്ക് മലയാളത്തിൽ പറയുമ്പോലെതന്നെ തമിഴിലും ഒക്കെ പറയാനായിട്ട് സാധിക്കുന്നുണ്ട് ആശയ വിനിമയം നടത്തുമ്പോൾ മലയാളികള് പെട്ടെന്ന് തന്നെ മറ്റൊരു സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവരുടെ ഭാഷകള് മനസ്സിലാക്കി എടുക്കാനും പഠിക്കാനും അത് സംസാരിക്കാനുമൊക്കെ മലയാളികൾക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട് അതിൻ്റെഒരു കാരണം തന്നെ മലയാള ഭാഷയുടെ പ്രത്യേകതയാണ് മലയാള ഭാഷ അത്ര കട്ടിയാണെന്നാണ് പറയുന്നത് എങ്കിലും മറ്റുള്ളവര് മലയാളം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ മലയാളത്തിന് ബുദ്ധിമുട്ട്കളൊക്കെ പറയുമെങ്കിലും അത്രഇത്രയും ബുദ്ധിമുട്ടൊള്ളൊരു ഭാഷ വളരെ സിമ്പ്ളായിട്ട് കൈകാര്യം ചെയ്യുന്ന മലയാളികൾക്ക് മറ്റ് ഭാഷകളും അവരുടെ വളരെ എളുത്തിൽ തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട്തന്നെ നമ്മള് മലയാളികള് മറ്റാളുകളുമായിട്ടാശയവിനിമയം നടത്തുമ്പോൾ ആംഗ്യഭാഷ ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട് ഒര് പരിധിവരെ എങ്കിലും പെട്ടന്ന്തന്നെ മറ്റ് ഭാഷകള് പഠിച്ചെടുക്കാനായിട്ട് മലയാളികൾക്ക് സാധിക്കുന്നുണ്ട് അത്കൊണ്ട്തന്നെ മലയാളഭാഷ മലയാളം സംസാരിക്കാത്ത ആളുകളുമായി മലയാളികൾക്ക് വളരെ സിമ്പിളായിട്ട് ആശയവിനിമയം നടത്താനായിട്ട് കഴിയുന്നുണ്ട് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക പിന്നെ മലയാളികളുടെ ഒരു കൾച്ചറെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് ഭാഷകളെല്ലാം ചെറുപ്രായത്തിൽത്തന്നെ മറ്റ് ഭാഷകളിലുള്ള സിനിമകളും പാട്ട്കളും ഒക്കെ ആസ്വദിക്കുന്ന ഒരു സ്വഭാവം മലയാളികൾക്കുണ്ട് അന്യഭാഷാ സിനിമകൾ ഇംഗ്ലീഷോ ഹിന്ദിയോ ഈവൻ കൊറിയൻ ഭാഷയിലുള്ള സീരീസുകൾ പോലും മലയാളികൾ വളരെ കാണുകയും ആ ഭാഷകള് പഠിക്കാനുള്ള അതിൻറ്റർത്ഥം മനസ്സിലാക്കാനും സംസാരിക്കാനൊക്കെ മലയാളികള് പഠിക്കുന്നുണ്ട് സംഗീതം ആസ്വദിക്കുമ്പോഴാണെങ്കിൽപ്പോലും ഹിന്ദിയും ഇംഗ്ലീഷും തമിഴും ഒക്കെ മലയാളികൾ മലയാളത്തെപ്പോലെ തന്നെ സ്നേഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് പലപ്പൊഴും നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാമ്കളും ടി വി പ്രോഗ്രാമ്കളും ഒക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മറ്റ് ഭാഷകൾ മലയാളം സംസാരിക്കാത്ത ആളുകളോട് മലയാളികൾക്ക് വളരെ എളുപ്പം തന്നെ ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്